ഞങ്ങളുടെ പ്രദേശത്ത് ആശുപത്രികൾ ഉണ്ട് ഒരുപാട് ആശുപത്രികൾ ഉണ്ട് ആവശ്യത്തിനൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ അടുത്ത് ഒരു നാലഞ്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട് അവിടെ ആവശ്യത്തിനുള്ള കിടക്ക ഒരു നാലോ എട്ടോ പത്തോ കിടക്കയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവൂ ഓക്സിജൻ സിലിണ്ടർ എല്ലായിടത്തും ഒന്നുമില്ല സ്കാനിങ്ങും എക്സ് റേയും ഒന്നുമില്ല അതൊക്ക പുറത്ത് പോയി ചെയ്യണം പിന്നെ ഇവിടുന്നൊരു അഞ്ചാറ് കിലോമീറ്റർ ദൂരെ പോയി വേണം വലിയ കൂടിയ ചികിത്സകളൊക്കെ നടത്താൻ വേണ്ടി ഈ സ്കാൻ ചെയ്യാത്തതിൻ്റെയോ ഓക്സിജൻ്റെയൊക്കെ കുറവ് കൊണ്ട് ഒരുപാട് അത്യാഹിതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അറ്റാക്ക് അതുപോലെയുള്ള രോഗങ്ങളുമായിട്ട് രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് രോഗികളെയും കൊണ്ട് വരുമ്പോൾ ഒരു അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് പറയും ഇവിടെ ഡോക്ടർ ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ടൈം കഴിഞ്ഞു നിങ്ങൾ സമയത്തിന് വാ അതേ ടൈമിൽ നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ എവിടെയെങ്കിലും പോയതാവും അല്ലെങ്കിൽ പിന്നെ സ്റ്റാഫ് ഉണ്ടാവില്ല സ്റ്റാഫ് ചിലപ്പം പോകാൻ നിൽക്കുകയാവും ചില ഡോക്ടേഴ്സ് ലീവ് ആയിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ സംഭവിക്കേണ്ട മരണം സംഭവിക്കാറുണ്ട് പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്തതിൻ്റെ ശ്വാസം മുട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒത്തിരി റോഡിൻ്റെയൊക്കെ അഭാവംകൊണ്ട് പെട്ടെന്ന് വണ്ടി ഓടി എത്താൻ പറ്റാത്തതിൻ്റെ പേരിലും ഒക്കെ അങ്ങനത്തെ അങ്ങനെ വരാറുണ്ട് ചിലപ്പോഴൊക്കെ കിലോമീറ്റർ ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് രോഗികളെയും കൊണ്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരു കിലോമീറ്റർ ദൂരെ എട്ടും പത്തും ഇരുപതും കിലോമീറ്റർ ഒക്കെയുള്ള എല്ലാ ഫെസ് സൗകര്യങ്ങളോടും ആ ഹോസ്പിറ്റലിലേക്ക് രോഗികളെയും കൊണ്ട് എത്തുമ്പോഴേക്കും ആ രോഗി അത്യാസന്ന നിലയിൽ എത്തിയിട്ടുണ്ടാവും പെട്ടെന്ന് ഒരു തീ പൊള്ളലേറ്റിട്ട് കൊ കൊണ്ടുപോവുകയാണെങ്കിൽ പ ഒരു പ്രാഥമിക ശുശ്രൂഷ പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ പത്തും ഇരുപതും കിലോമീറ്റർ ഓടിച്ചെന്നെങ്കിലേ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുള്ളൂ ആയ് അതുകൊണ്ട് പലർക്കും മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ നെഞ്ചു വേദനയായിട്ട് വരുന്ന രോഗികളെ അറ്റാക്ക് സംബന്ധമായിട്ട് നേരത്തെ അറ്റാക്ക് വരാത്തതാവാം ചിലർ ചില വന്നവരാവാം ഓടി എല്ലാ സൗകര്യവും ഉള്ള ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ അവർ നമ്മൾ വിചാരിച്ച ഡോക്ടർ അവിടെ ഉണ്ടാവില്ല ആ ഡോക്ടറെ വിളിച്ചു വരുത്തി ആ സമയം കൊണ്ട് രോഗി മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻറ് ഉണ്ടായാൽ ഈ ആക്സിഡൻറ് ആവുന്ന രോഗിക്ക് പല കയ്യും കാലും ഒടിയുകയോ അല്ലെങ്കിൽ ഗുരുതരമായ തലയ്ക്ക് പരിക്ക് പറ്റിയതും ഹാർട്ടിന് കമ്പ്ലൈന്റ് ആയതും ഒക്കെ ആയിരിക്കാം അങ്ങനെ പലപ്പോഴും രോഗി മരണപ്പെട്ടിട്ടുണ്ട് ബൈക്ക് ഇടിച്ചും ബസ് ബസ് കൂട്ടിയിടിച്ചും ബസ് മറിഞ്ഞും ആണ് ഒത്തിരി ആക്സിഡന്റ് രോഗികളെയും കൊണ്ടു വരുന്ന ഹോസ്പിറ്റൽ ആണ് ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റൽ ചിലപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ വേറെ ഒരു ജില്ലാ ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ എത്തുമ്പോഴേക്കും രോഗിയുടെ നില അതീവ ഗുരുതരമാണ് ആകാറുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളും ബു അനുഭവിച്ചിട്ടുണ്ട് ഓക്സിജൻ ഇല്ലാത്തതിൻ്റെ പേരിലും പെട്ടെന്ന് ഒരു സ്കാനിങ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രെഗ്നന്റ് ആയ ലേഡിയേയും കൊണ്ട് അല്ലേ ഗർഭിണിയായ ഒരു പെണ്ണിനെയും കൊണ്ട് പെട്ടെന്ന് അവളുടെ ആ ഒരു അവസ്ഥയിൽ ഓടി അവിടെ എത്തുമ്പോഴേക്കും പ്രസവിച്ച് വരാത്ത ഒരു അവസ്ഥ ആയിരിക്കും അപ്പം അവിടെ ഇന്ന് ഓപ്പറേഷൻ ഇല്ല ഇന്ന് ഓപ്പറേഷൻ്റെ സമയമല്ല അല്ലെങ്കിൽ ഓപ്പറേഷൻ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രിയിലൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് ആ ദിവസങ്ങളിൽ മാത്രമേ അവിടെ ഓപ്പറേഷൻ നടത്താറുള്ളൂ അപ്പം ഒക്കെ വേഗം മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗിയെ എത്തിക്കണം ആ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോഴേക്കും ചിലപ്പം കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെട്ടു രക്തസ്രാവം മൂലം പെണ്ണ് അമ്മ മരിച്ചിട്ടുണ്ടാവാം ചിലപ്പം രണ്ട് കുഞ്ഞുങ്ങൾ ഒക്കെയുള്ളത് ആണെങ്കിൽ അവർ വളരെയധികം അപകട സ്ഥിതി തരണം ചെയ്തായിരിക്കും അവരേയും കൊണ്ട് നമ്മൾ പോകുന്നത് അങ്ങനെ പോകുന്ന അവസരത്തിൽ നമുക്ക് അതിന് സൗകര്യപ്രദമായ ഹോസ്പിറ്റൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ഏറ്റവും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ ഇപ്പം എന്തെങ്കിലും ഉപകരണങ്ങൾ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്തു വെച്ചിട്ട് റി ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ അപ്പൻഡിക്സ് പോലെയുള്ള രോഗങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ആ രോഗിക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതിന് എല്ലാ സൗകര്യവും ഉള്ള ആശുപത്രിയിലോട്ട് തന്നെ തിരഞ്ഞ് ഓടി നമ്മൾ എത്തണം നമ്മുടെ ആശുപത്രിയിലൊന്നും പെട്ടെന്ന് അതിനുള്ള സൗകര്യങ്ങളില്ല അവരെ പറഞ്ഞു വിടും നിങ്ങൾ ഇന്ന ഹോസ് ഇടത്തേക്ക് പോയ്ക്കോ എന്ന് പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ആയാൽ ആ രോഗിയുടെ അവസ്ഥ ഗുരുതരമായി എന്നിട്ട് ആ രോഗിയെയും കൊണ്ട് ഓടി നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ചിലപ്പം അപകടാവസ്ഥയിൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ അപ്പൻഡിക്സ് പൊട്ടിയിട്ടുണ്ടാകും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെയൊരു കൂട്ടുകാരിയുടെ മകന് ഇവിടുന്ന് കുഴപ്പമില്ല വയറുവേദനയാണെന്ന് പറഞ്ഞുവിട്ടു കുട്ടിയേയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും പിന്നെയും വയറുവേദന വന്ന് അപ്പൻഡിക്സ് പൊട്ടി പൊട്ടിയിട്ട് യുവാവ് മരിക്കാനുണ്ടായ ഒരു അവസ്ഥ ഞാനത് ഇന്നലെ എൻ കണ്ടതുപോലെ ഓർക്കുന്നു എൻ്റെ കണ്ണിൽ അതുപോലെ മാരകമായ പെട്ടെന്ന് വിഷം ഉള്ളിൽ ചെന്നിട്ട് ഇവിടെ എങ്ങും എടുക്കാത്തതിൻ്റെ പേരിൽ കോഴിക്കോട് ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി കിൽ പത്ത് നാൽപ്പത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തി അവിടെ ചെല്ലുമ്പോൾ വിഷം ഉള്ളിൽ ചെന്നതാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് തിരിഞ്ഞു നോക്കില്ല അവൻ വിഷം കഴിച്ചിട്ടല്ലേ അവിടെ കിടക്കട്ടെ എന്ന് കരുതും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഡോക്ടേഴ്സ് നേഴ്സുമാരും പ്രവർ ചെയ്യാത്തതിൻ്റെ പ്രാഥമികമായ ശുശ്രൂഷകൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ രോഗി മരിച്ചിട്ടുണ്ട് അതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുടെ അവസ്ഥയാണ് എപ്പോഴും കഷ്ടം അവരുടെ സങ്കടം കൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവരെ പലപ്പോഴും ഈ ഡോക്ടർമാർ ഒരു കുറച്ച് സമയം കഴിഞ്ഞേ തിരിഞ്ഞു നോക്കാറുള്ളൂ മരിക്കാൻ ചെയ്തതല്ലേ അവിടെ കിടക്കട്ടെ എന്നുള്ള ആ ഒരു ഇത് പല പല ഇടത്തുനിന്നും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ഡോക്ടർമാരുടെ വായിൽ നിന്ന് തന്നെ പിന്നെ അവരുടെ ബന്ധുക്കൾ വന്ന് കാലുപിടിച്ചു കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത് കാലിൽ പെട്ടെന്ന് പാമ്പ് കടിച്ച ഒരാളെയും കൊണ്ട് ചെല്ലുകയാണെങ്കിൽ ഞങ്ങളുടെ ജില്ലാ ആശുപത്രിയിൽ പോലും അതിനുള്ള പ്രതിവിഷമോ അതിനുള്ള സൗകര്യങ്ങളോ ഉണ്ടാകാഞ്ഞിട്ട് അതും എൻ്റെ അയൽവക്കത്ത് തന്നെയുള്ള ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പേ പാമ്പ് കടിച്ചിട്ട് ഞങ്ങടെ ജില്ലാ ആശുപത്രിയിൽ പോലും അതിനു വേണ്ടിയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ ആ മനുഷ്യനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴത്തേനും മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴത്തേനും ആ യുവാവ് മരണപ്പെട്ടത് ഇന്ന് ഞാൻ ഇന്നലെ കണ്ടതുപോലെ ഓർക്കുകയാണ് അങ്ങനെ ഒരുപാട് രോഗികളുടെ ശോചനമായ അവസ്ഥ മാരകമായ അസുഖങ്ങളായ ക്യാൻസർ ഒക്കെ പതുക്കെ പതുക്കെ വരുന്നതാണ് അറ്റാക്ക് പിന്നെ ആത്മഹത്യ ചെയ്തത് തീപിടുത്തം പ്രസവ കേസ് അതുപോലെ പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെയുള്ള രോഗികളൊക്കെ ഈ ആശുപത്രി അടുത്ത് ഇല്ലാത്തതിൻ്റെ പേരിലും വേണ്ടത്ര ഓക്സിജൻ സിലിണ്ടർ സ്കാനിങ് അതുപോലെ ശസ്ത്രക്രിയ ചെയ്യുന്നിടത്ത് അല്ലേ ഉപകരണങ്ങൾ ഇല്ല അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ ഇന്ന് ഇവിടെയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവസ്ഥ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ